എൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഞാന് രാവിലെ എണീച്ച് ഒരു അര മണിക്കൂറ് അല്ലെങ്കി മുക്കാൽ മണിക്കൂറെല്ലാം വ്യായാമം ചെയ്യാറുണ്ട് വീട്ടിന് പുറത്തൊന്നും പോയി വ്യായാമം ചെയ്യില്ലെങ്കിലും വീട്ടിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് പുഷപ്പ് പുളളപ്പ് സ്കോട്സ് പ്ലാങ്ക് അതുപോലെ പിന്നെ വാമപ്പ് പല പല വാർമപ്സുകളും ഒക്കെ വീട്ടിൽ തന്നെ വർക്ക് ഔട്ട് ചെയ്യാറുണ്ട് ഇനീ എനിക്ക് നല്ല നല്ല ഭക്ഷണങ്ങള് കഴിക്കാറുണ്ട് വെജിറ്റബിൾസ് ഫ്രൂട്സൊക്കെ പിന്നെ ഷ് വല്ല വീക്കെൻറ്റുകളൊക്കെ വരുമ്പോൾ ഒരു നല്ല ഗ്രൗണ്ടിലൊക്കെ പോയി രണ്ട് റൗണ്ട് അല്ലെങ്കി മൂന്ന് റൗണ്ട് ഒക്കെ ഓടാറുണ്ട്